കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് ഞാന് എനിക്കൊരു ജീപ്പുണ്ടായിരുന്നു ജീപ്പ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ജീപ്പാണ് അപ്പോൾ ഞാനെന്ത് ചെയ്ത് അന്ന് കല്പറ്റക്ക് പോകുവായിരുന്നു മാനന്തവാടിയിൽ നിന്ന് അപ്പം പ്രശ്നം എന്താന്നുവെച്ച്കഴിഞ്ഞാല് ഞാനവിടുന്നിങ്ങനെ പോയി കൊണ്ടിരിക്കുവാണ് അപ്പം നല്ല മഴയും കാറ്റുമൊക്കെ ഉണ്ടായിരുന്നു വണ്ടി ചെറുതായിട്ട് വണ്ടിയില് നമ്മളൊക്കെ എന്താ പറയുക മിസ്ററ് പിടിച്ച് കഴിഞ്ഞിട്ട് കാണാതെ ഒക്കെ ആയി എന്നിട്ട് ഞാൻ ഇടക്ക് ഇറങ്ങി തുടയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു പക്ഷേ എന്താ ചെയ് സംഭവംഎന്താന്ന് വച്ചാല് നമ്മള് പോകുന്ന വഴിക്ക് പല പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിനിടക്ക് എ ടി എമ്മില് പൈസ കിട്ടുന്നില്ല അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായി ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് എന്തായി ഒരു വളവുണ്ട് വലിയൊരു വളവാണ് ആ വളവിൽ നിന്ന് ഒരു പിക്കപ്പ് നേരെ വന്നിട്ട് നം എന്താ പറയുക നേരെ വന്ന് നമ്മളെ ഇടിയ്ക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇടിച്ച് കഴിഞ്ഞ പാടെ എന്താ പറയുക എൻ്റെ വൈഫ് പ്രെഗ്നൻറ്റാണ് അപ്പം അവൾക്കെന്തങ്കിലും പറ്റുവോ എന്നും പേടി വണ്ടിയുടെ ഉള്ളില് അവളുടെ അമ്മയുണ്ട് എൻ്റെ പെങ്ങളുണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു അപ്പം ഭയങ്കര പ്രശ്നം ആയിട്ടുണ്ടായി അപ്പോൾ വണ്ടിയുടെ ഞാനിരിക്കുന്ന ഒരു സൈഡ് മൊത്തം ഉള്ളിലേക്ക് ചളുങ്ങി പോകുവൊക്കെ ചെയ്തായിരുന്നു അപ്പം നമ്മളെന്താ ചെയ്യുക എന്ന് അറിയാതെ ഞാനയാളെ കുറെ പോയി ചീത്തയൊക്കെ വിളിച്ചു പക്ഷേ അയാള് നല്ലൊരു മനുഷ്യനായിരുന്നു പക്ഷേ ഞാനയാളുടെ കോള്ളറിൽ പിടിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു നിർത്താതെ ഇങ്ങനെ പോയി അപ്പം അയാള് പറഞ്ഞ് അയാൾക്ക് പ്രഷറ് കൂടിയതാണ് അപ്പോൾ പെട്ടന്ന് കണ്ടില്ല വണ്ടി എന്നിട്ട് അങ്ങനെ വന്നിടിച്ചത് എന്നൊക്ക് പറഞ്ഞ് അയാള് കുറേ സോറി ഒക്കെ പറഞ്ഞ് അങ്ങനെ കുറെ പ്രശ്നമുണ്ടായിരുന്നു അന്നേരം എനിക്ക് ഭയങ്കര ടെൻഷനായി കാരണം എന്തെന്ന് വെച്ചാൽ വണ്ടിക്കും ഇങ്ങനെയായി ഇവൾക്ക് എന്തേലും പറ്റുവോന്നും ടെൻഷൻ മൊത്തത്തില് ഒരു പ്രശ്നമായിട്ട് ഇവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ വണ്ടീൻ്റെ ഒരു സൈഡ് മൊത്തം പൊളിഞ്ഞു പോകുകയൊക്കെ ചെയ്തായിരുന്നു പിന്നെ പുള്ളി തന്നെ പറഞ്ഞു ഞാൻ നന്നാക്കിത്തരാം നിങ്ങള് രാവിലെ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് നമ്പറൊക്കെ മേടിച്ചു പോയി പക്ഷേ പുള്ളിനെ വിളിച്ചിട്ട് അന്ന് എടുക്കുന്നുണ്ടായില്ല അന്നും അതിൻ്റെ പിറ്റേ ദിവസം ഞാൻ വരാൻ നേരത്തും വിളിച്ചിട്ടും എടുക്കുന്നുണ്ടായില്ല പക്ഷേ പുള്ളി വലിയൊരു എന്താ പറയാ പുള്ളി പുള്ളീൻ്റെ ഫോണിനെന്തോ കംപ്ലൈൻറ്റ് ആയിട്ടാണ് പ്രശ്നം പറ്റിയേന്നു പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു അവിടെ നിന്ന് ഞാനും എൻ്റെ ന നന്ദു എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട് അവനും കൂടെ പോയി അവിടെ നിന്ന് അവിടെ നിന്ന് വണ്ടി കാണിച്ച് പുള്ളി വന്നു അപ്പോഴത്തേക്കും എന്നിട്ട് പറഞ്ഞു ഇരുപത്തി രണ്ടായിരം രൂപ വരും എന്ന് പറഞ്ഞ് പുള്ളി ഒറ്റക്ക് അത് ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞ് പുള്ളി നല്ലൊരു മനുഷ്യനായത് കൊണ്ട് അത്രയും ചെയ്ത് തന്നു എന്നിട്ട് വണ്ടി ഞങ്ങള് നന്നാക്കിയെടുത്തു ഇതാണ് എനിക്ക് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല്